ഞാൻ കേരളത്തിൽ ജനിച്ചുവളർന്നു എന്നതുകൊണ്ട് മലയാളഭാഷ നമ്മളുടെ നല്ലയൊരു ഭാഷയായിട്ട് നമുക്ക് മലയാളി പാരമ്പര്യം പാരമ്പര്യമുള്ള ഒരു ഭാഷയായിട്ട് മലയാളി തന്മയത്വമുള്ള ഒരു

അഭിമാനത്തോടെയും തന്നെ കാണുന്നു മലയാളികൾ എങ്ങനെ ജീവിക്കണം അവരുടെ വ്യക്തിത്വം എന്തുവാണെന്നുള്ളത് എവിടെച്ചെന്നാലും ഒരു മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ മലയാളികളുടെ വ്യക്തിത്വവും അവരുടെ പ്രവർത്തനരീതിയും അത് എല്ലാത്തിൽ നിന്നും വേർതിരിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിൽച്ചെന്നാലും മലയാളികൾ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളുമില്ല മലയാളികൾ എവിടെച്ചെന്നാലും അവരവരുടെ ഭാഷ ഉപയോഗിക്കുകയും അവിടെയുള്ള ഭാഷ അവർ തന്മയത്വത്തോടെ പിന്നെ പഠിച്ച് അവർ സംസാരിക്കുകയും ചെയ്യും മലയാളികളെ ഒരു കാരണം മലയാളികളുടെ വ്യക്തിത്വം ഒരു കാരണത്താലും എങ്ങും നശിക്കപ്പെട്ടു പോകാനോ അവരുടെ ആ ഒരു രീതിയിൽ നിന്നും വിവി വിവിധങ്ങളായ സംസ്കാരങ്ങളുള്ള ഒരു നാടാണ് അതായത് പിന്നെ ആരാധനാലയങ്ങളാണെങ്കിലും ക്രിസ്ത്യൻസ് മുസ്ലിം ഹിന്ദുക്കൾ അവർക്കൊക്കെ അവരുടേതായ ഒരോ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ് ആ ഒരു കാര്യം പിന്നെ മലയാളി ആയതുകൊണ്ട് ഓരോ കേരളീയനും അഭിമാനിക്കുന്നുണ്ട് ഓരോ മലയാളിക്കും അവരുടേതായ സംസ്കാരവും വ്യക്തിത്വങ്ങളും അവർ എവിടെച്ചെന്നാലും കാത്തു സൂക്ഷിക്കുകയും അതിനായി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മ മലയാളം തന്നെ പിന്നേ ഭല മലയാളം ഭാഷകളിൽ നിന്നും ഓരോ പിന്നെ സാ സാഹിത്യങ്ങളാണെങ്കിലും നോവലുകളാണെങ്കിലും ഒ പിന്നെ അങ്ങനെ എഴുതുന്ന ഓരോ വ്യക്തികളും അതിൻറ്റേതായ അവരുടേതായ തനതായ ശൈലി നിലനിർത്തിക്കൊണ്ട് മലയാള സംസ്കാരത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തു കൊണ്ട് തന്നെയും അവരവരുടെ കാര്യങ്ങൾ നിലനിന്നു പോകുന്നു മലയാളത്തിൽ മലയാളം പഠിക്കുന്നതിനും എഴുതുന്നതിനും ഒത്തിരി മലയാളിക്കവികൾ വള്ളത്തോൾ എന അങ്ങനെയുള്ള കവികൾ തകഴി ശ ശിവശങ്കരപ്പിള്ള അങ്ങനെയുള്ള ഒത്തിരി കവികളെയും കഥാകൃത്തുകളെയുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഒരു നമ്മുളുടേതായ സംസ്കാരം മലയാളത്തിൽ നമ്മൾ മലയാളികളായ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് മലയാളിയാണെന്ന് എവിടെച്ചെന്ന് പറയുന്നതിനും നമുക്ക് യാതൊരു ലജ്ജയൊ വിധ്വോ എന്നാൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ലാതെയാണ് ഓരോ മലയാളിയും ഓരോ വിദേശരാജ്യങ്ങളിലും ഓരോ രാജ്യങ്ങളിലും പോയി അവരോരുടെ ഭാഷയെ നിലനിർത്തിക്കൊണ്ടു തന്നെ അവർ അവരുടേതായ ശൈലിയിൽ ജീവിക്കുന്നു എല്ലാവരുടെയും വ്യക്തിത്വം ഓരോ അവരുടേതായ ഓരോ വ്യക്തിത്വവും മലയാളി എന്നുള്ള നിലയ്ക്ക് മലയാളഭാഷയെ അവരവരുടേതായ രീതിയിൽത്തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുകയും ചെയ്യും